ജോലി സ്ഥലത്തിൽ നിന്ന് ആ അങ്ങനെ ജോലിസ്ഥലത്ത് എന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള വെല്ലുവിളിയൊന്നും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടൊന്നും ഇല്ല പിന്നെയെന്നു പറഞ്ഞാൽ പ്രൊജക്റ്റിനെ കുറിച്ചും ചുമതലയെ കുറിച്ചൊക്കെയെന്നു പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് പറഞ്ഞ സമയത്തു ചെയ്തു തീർക്കണം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ തരും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളത് ചെയ്തു തീർക്കണം എന്നിട്ടത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളോട് നമ്മളുടെ മാനേജറാണെങ്കിലും ഓഫീസിലെ വലിയ ഒരു അംഗം നമ്മളോട് പറയും നമ്മളന്നേരം ആ സമയത്തു നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാവരുടെ അടുത്തുനിന്നും നമുക്ക് നല്ലൊരു ചീത്തയൊക്കെ കേൾക്കും ചെയ്തു കഴിഞ്ഞിട്ടില്ലായെന്നൊക്കെ പറഞ്ഞു അതിന് നമുക്ക് പണിഷ്മെൻറ്റൊക്കെ തരാറൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒരു നിശ്ചിത സമയം തരും ആ സമയത്തു നമ്മൾ ചെയ്തു തീർത്താൽ നമുക്കെന്തെങ്കിലും നല്ല നല്ല ക വർത്തമാനമൊക്കെ നമ്മളോട് പറയും നല്ല സ്നേ നന്നായിട്ടുണ്ട് നല്ല വർക്കാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളെ അപ്പ്രിഷിയേറ്റ് ചെയ്യും എന്നാലെ നമ്മൾ ആ പറഞ്ഞ സമയത്തു ചെയ്ത് തീർത്തില്ല എങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് നല്ല അനുഭവായിരിക്കില്ല ഉണ്ടാവുക മോശം അഭിപ്രായം തന്നെയായിരിക്കും അവരാണെങ്കിൽത്തന്നെ എല്ലാര കയ്യിൽ നിന്നും നമുക്ക് കേൾക്കുക തന്നെ ചെയ്യുക